എൻ്റെ പ്രദേശമായ പാലക്കാട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വിശ്വസിച്ച് കൊണ്ടിരിക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് ഒടിയനുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന അന്ധവിശ്വാസം ഈ ഒടിയൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജാതിയിലുള്ള ആൾക്കാര് ഈ ഒരു ഒടി വിദ്യയിലൂടെ രൂപം മാറുകയും മറ്റ് ആൾക്കാരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെ ചാത്തൻ പോലുള്ള ഒരു ദുർ ദുർമന്ത്രവാദം അല്ലെങ്കിൽ ദുർ രീതി ഉപയോഗിച്ച് മറ്റുള്ളവരെ കൂടോത്രം ചെയ്തു നശിപ്പിക്കുന്ന ഒരു അന്ധവിശ്വാസം ഇന്ന് എൻ്റെ നാട്ടിലുണ്ട് ഇത് ഇന്ന് വളരെ അധികം രീതിയില് മനുഷ്യരെ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ആളുകളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇവർ ഇത് ഒരു വിശ്വാസമായിട്ടാണ് ഇന്ന് കണ്ട് വരുന്നത്